പ്രതിരോധശേഷി ഏറ്റവും കുറവുള്ളവരും ശ്രദ്ധ ഏറ്റവും കൂടുതൽ വേണ്ടവരുമായ വിഭഗത്തിൽ ഒന്നാണ് നവജാത ശിശുക്കൾ നവജാത ശിശുകൾക്ക് വൃത്തിയുളള അന്തരീക്ഷം നിർബന്ധമായും ഉറപ്പാക്കണം കാരണം അവർക്ക് ഭയങ്കര പ്രതിരോധശേഷി വളരെ കുറവാണ് അതിനു വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ ആൾക്കാർക്ക് ഒരു ബോധവൽക്കരണം നൽകണം ഈ ശിശുക്കളൊക്കെ ഒള്ള വീട്ടിൽ അവർക്ക് എന്തോരം നവജാത ശിശുക്കളുടെ മേൽ ശ്രദ്ധ വേണം എന്നും വൃത്തിയുള്ള അന്തരീക്ഷത്തിന് എന്തോരം പ്രാധാന്യം ഉണ്ടെന്നും ആദ്യമേ അവർക്ക് ഒരു നോളഡ്ജ് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് ആവശ്യകത ആവശ്യകത ആൾക്കാർക്ക് മനസ്സിലാവുകയും അതനുസരിച്ച് ആൾക്കാർ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും സാധിക്കൂള്ളു നവജാത ശിശുക്കൾക്ക് വൃത്തി ആ അസുഖം വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അറിവുള്ള ആൾക്കാരുടെ അതായത് ഈ അടുത്തുള്ള പ്രാദേശിക ആശുപത്രി ഹെൽത്ത് സെൻറ്ററ് പോലെ ഉള്ള അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക വേണ്ട സമയത്ത് കുട്ടികൾക്ക് വാക്സിന് നൽകുകയും പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകുകയും അവർ പറയുന്ന പോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക പിന്നെ നവജാത ശിശുക്കളെ സംബന്ധിച്ചോളം വൃത്തി വളരെ വലിയ കാര്യമാണ് അവർക്ക് നിർബന്ധമായും അങ്ങനെ ഒരു സാഹചര്യം ഉറപ്പാക്കേണ്ടത് സമൂഹത്തിൻ്റെ കടമയാണ് അതിന് നമുക്ക് അവരുടെ ഭക്ഷണ സാധനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതായത് അമ്മയുടെ സംരക്ഷണം പോലെ തന്നെ കുട്ടിക്കും അമ്മയുടെ സംരക്ഷണം കുട്ടിയുടെ മേലുള്ള സംരക്ഷണത്തെ പോലെ തന്നെ നമ്മൾ വിലമതിക്കേണ്ട ഒന്നാണ് പിന്നെ അവരുടെ ചുറ്റുപാടുകൾ ഈ കൊതുക് അതൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക പിന്നെ അവർക്ക് വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക ഈ കൊതുക് പോലുള്ള ഈ രോഗം പടർത്തുന്ന ജീവികളിൽ നിന്ന് ഒരു സംരക്ഷണം നൽകുക കുട്ടികൾക്ക് ഒരു ടോട്ടലി ഒരു നല്ലൊരു അന്തരീക്ഷം ഉറപ്പ് വരുത്തണം